ആറ് എട്ട് രണ്ടായിരത്തി മൂന്ന് നാല് പത്തൊൻപത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി ഒൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴ് മൂന്ന് എട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന്